അ ഹലോ അതെ അതെ ആണല്ലൊ ആണോ ഇവിടെ കരിമീനുണ്ട് കാളാഞ്ചി ഉണ്ട് മോത ഉണ്ട് വറ്റയുണ്ട് ചൂര ഉണ്ട് കേര ഉണ്ട് മ് എന്താ വേണ്ടത് ആ കുറച്ചേ ഉള്ളു കരിമീൻ കുറച്ചേ ഉള്ളു ഒത്തിരി ഒന്നുമില്ല ഉം ഇന്ന് കുറവായിരുന്നു മ് കാണുമോന്ന് ഒര് കിലൊ കാണുമോന്ന് അറിയത്തില്ല നോക്കാം ഉം ഒര് കിലോ കാ തികച്ച് കാണത്തില്ലായിരിക്കും വെട്ടി കൊടുക്കാൻ ഇവിടുന്ന് ഇപ്പം ആള് ഇതാണ് ഞാനൊരു നോക്കട്ടെ ആളുണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അവിടെ നിൽക്ക് ഹോൾഡ് ചെയ്യണെ ആ ഞാൻ നോക്കട്ടെ ആളേ അവര് പുറത്തോട്ട് പോയിരിക്കുകയായിരുന്നു തിരിച്ച് വന്നോന്ന് നോക്കട്ടെ അവർക്ക് അവർക്കെന്തോ അർജൻറ്റായിട്ട് വീട്ട് വരെ പോകണമെന്ന് പറഞ്ഞ് വെട്ടിയിട്ട് പോകാൻ സമയം ഉണ്ടോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ആ ഇന്ന് കരിമീൻ എണ്ണൂറ് രൂപയാണ് വില

ആ വെട്ടുമ്പം കരിമീന് അമ്പത് രൂപ ആകും അപ്പം എണ്ണൂറ്റമ്പത്

ആ അവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഉം ആ ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ ഉം അവര് പറഞ്ഞു ഇപ്പം വെട്ടി തരാമെന്ന് പറഞ്ഞു ആ ഉണ്ട് ആ ആ വേറെ എന്തേലും മീൻ വേണോ ഇന്ന് കേര ഒക്കെ കേര ഉണ്ട് ചൂരയുണ്ട് മോതയുണ്ട് തളയുണ്ട് ഏതാ വേണ്ടത് തള നാനൂറ്റമ്പത് കിലോയ്ക്ക്

ആ ഫ്രഷാണ് ഫ്രഷാണ് ഉടനെ വരുവല്ലൊ അല്ലെ

ആ ആ ആ ആ എന്നാൽ ശരി എന്നാല് ഉടനെ വാ